ഞാൻ ജനിച്ചു വളർന്നത് ഇത് ജനിച്ചു വളർന്നത് ഒരു രണ്ടായിരത്തി മൂന്ന് മുതലുള്ള കാലഘട്ടത്തിലാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങളുടെ വിനോദം എന്നു പറയുന്നത് ഞങ്ങൾ കളിക്കുമായിരുന്നു കഞ്ഞിയും കൂട്ടാനും ഓടി പിടുത്തവും സാറ്റും ഫുട് ബോളും ക്രിക്കറ്റും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾ കളിക്കുമായിരുന്നു എല്ലാവരും ഒരു കുട്ടിയായിരിക്കുന്ന ആ ഒരു കാലഘട്ടം വരെ പക്ഷെ ഒരു അഞ്ച് ക്ലാസ് കഴിഞ്ഞതിൽ പിന്നെ അത് ക്രമേണ പ്രായത്തിൻ്റെ എതിരിയായിരിക്കുക അത്തരം കളികൾ കുറഞ്ഞെങ്കിലും പിന്നീട് നമ്മുടെ അവിടെ ഓണപ്പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പാട്ട് പാടുകയും അതിൽ കളിക്കുകയും അങ്ങനെയുള്ളൊരു സമ്പ്രദായം നിലനിന്നിരുന്നു എന്നാൽ പിന്നീട് ഒരു എട്ടാം ക്ലാസ്സൊക്കെ മുതലൊക്കെ ഒരു ഞാനെട്ടിലായപ്പോൾ മുതൽ ഫോണും സ്മാർട്ട് ഫോണൊക്കെ പ്രചാരത്തിലാകുകയും അതു കൂടുതലാളുകൾ ഉപയോഗിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്തു എന്നാൽ അതിൻ്റെ പിന്നീടും ടീ വിയുടെ പിന്നിലും ടീ വി വന്നതിൽ പിന്നെയുമൊക്കെ കുട്ടികളൊക്കെ അതിൽ കൂടുതൽ ആശ്രയിക്കാൻ ഫോണാണെങ്കിൽ ഫോണിൽ കൂടുതൽ ആശ്രയിക്കുവാനൊക്കെ തുടങ്ങിയിരിക്കുന്നു പക്ഷെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗ്രാമങ്ങളിലുള്ളവരാണെങ്കിലും സംബന്ധിച്ചിടത്തോളം അവരിതു പോലെയുള്ള പറമ്പുകളിലും പള്ളിപ്പരിസരങ്ങളിലും അമ്പലപ്പരിസരങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് അവർ അവരേതായിട്ടുള്ള വിനോദങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിലും എന്താണ് ഫോൺ ഒരു വലിയ വിഷയമായിട്ടു മാറിയിരിക്കുന്നു അപ്പോൾ കൂടുതലും ഉപയോഗിക്കുന്നത് പണ്ടത്തെക്കാലം ഫോണുകൾ തന്നെയാണ് പണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ കുറച്ചാളുകൾ കൂടുമ്പോൾ ഒരുമിച്ചിരുന്ന് പാട്ട് പാടും ഒരുമിച്ചിരുന്ന് കൈ കൊട്ടാം ഡാൻസ് കളിക്കാം അങ്ങനെ പല പല വിനോദങ്ങളിലൽ എർപ്പെട്ടിരുന്നു എന്നാലിന്നത്തെ കാലഘട്ടത്തിൽ അവരത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ മറിച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഒരുമിച്ചാളുകൾ കൂടുകയാണെങ്കിൽ തന്നെയും എല്ലാവരും വട്ടത്തിലിരുന്ന് ഫോൺ നോക്കുകയോ റീൽസ് കാണുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് മാറിയിരിക്കുന്നു അപ്പം ഇന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഉള്ളിലേക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് എന്തിൻ്റെയാണ് എന്നു ചോദിച്ചാൽ അറിയാനായിട്ട് പറ്റില്ല പക്ഷെ ഞാൻ എന്നെപ്പോലെയുള്ള കുറേ ആളുകൾ ഇങ്ങനെയല്ല പുറത്തു വരണമെന്നും വിനോദം അതിൻ്റേതായിട്ടുള്ള ശരിയായ രീതിയിൽ കൊണ്ടു വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൻറ്റേതായിട്ടുള്ള കോൺഫിഡൻസവർക്കില്ല എങ്കിലും ഞാനത് തുടങ്ങണമെന്നറിയില്ല ഇനി തുടങ്ങണമെന്നുണ്ടെങ്കിൽത്തന്നെ അതിനുള്ളൊരു സ്നേഹക്കൂട്ടായ്മയില്ല അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് അപ്പം വിനോദം എന്നു പറയുന്നത് കൂടുതലാളുകൾക്കും ഒരു ഫോൺ ഉപയോഗിക്കുന്നതിലേക്കൊക്കെയായിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു മാറി അപ്പോൾ അതു വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടു തന്നെയാണ് എനിക്ക് പേർസണലി തോന്നിയത് കാരണം ഫോണെന്നു പറയുന്നത് ഹൈലി റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പാരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കണക്റ്റ് ചെയ്യുന്ന പരമായിട്ടു നോക്കുകയാണെങ്കിലും നമ്മളങ്ങോട്ടുമിങ്ങോട്ടും സംസാരിക്കുന്ന ആ ഒരു രീതി അങ്ങോട്ടുമിങ്ങോട്ടും പരസ്പരം ചിരിക്കുന്ന രീതി പരസ്പരം പാട്ട് പാടുന്ന രീതി പരസ്പരം ഡാൻസ് കളിക്കുന്ന രീതി അതൊക്കെ കുറച്ച് കുറവുണ്ട് കൂടുതലാളുകൾ എല്ലാം ഫോണിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ഫോണിൽ ഉപയോഗിച്ച് വിളിക്കാൻ കൂടി ആളുകൾക്കു മടിയാണ് ഞാനുൾപ്പെടെയുള്ളവർക്ക് മടിയാണ് അവർ മെസേജയക്കാനാണ് കൂടുതൽ പേരും അവർ പ്രിഫർ ചെയ്യുക അപ്പോൾ എന്നിരുന്നാലും ഇപ്പോൾ കളി സ്പോർട്ട്സെന്നു പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പതു കൊണ്ടു തന്നെ ഇപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് വരിക ഒരുമിച്ചു കളിക്കുക അങ്ങനെയുള്ള പലകാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷെ എല്ലാ ദിവസം പോകാനുള്ള സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ ഒതുക്കിന് വേണ്ടിയിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടു വരുന്നത് നല്ലതാണ് ഫോണും മാത്രമല്ല ലാപ്ടോപ്പും മാത്രമല്ല അല്ലാതെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരണം പിന്നെ വിനോദം എന്നു പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്താണെങ്കിലും ഇപ്പം എങ്ങനെ മാറിയിരിക്കുന്നു എന്നു പറഞ്ഞാൽ ആളുകൾ പാട്ട് കേൾക്കുന്നതും വീഡിയോകൾ കാണുന്നതും തീർച്ചയായും ആളുകൾക്ക് പ്രയോജനകരം തന്നെയാണ് ഉദാഹരണത്തിന് ഞാനെൻ്റെ ടീനേജ് വയസ്സിലായിരുന്നപ്പോൾ ഒരുപാട് ആങ്ക്സൈറ്റീസും എൻ്റെ ബോഡിയെക്കുറിച്ച് ഇൻസെക്യൂർഡ് ആകുക എൻ്റെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതിൽ നിന്ന് എൻ്റെ മോശമായിട്ടുള്ള അത്തരം ശീലങ്ങൾ എനിക്ക് ദൂരീകരിക്കാൻ അതങ്ങനെയല്ലെന്ന് അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണാനും ഒക്കെ എന്നെ സഹായിച്ചത് ഇത്തരം വീഡിയോകൾ തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അടഞ്ഞു കിടക്കുന്ന നമുക്കു മാത്രം പരിചിതമായിട്ടുള്ള ആളുകളിൽ നിന്നു മാത്രമല്ല കൂടുതലറിവുകളുള്ള ആളുകളിൽ നിന്നും അടിവ് സ്വീകരിക്കാനായിട്ട് ഈ വീഡിയോകൾ കാണുന്നതും ഒക്കെ സഹായിക്കുന്നുണ്ട് ഒപ്പം തന്നെ പാട്ട് കേൾക്കുന്നതും ഒക്കെ ഇതായിരുന്നു ഇപ്പോൾ പണ്ടത്തെ കാലഘട്ടമെന്നു പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ടീ വിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പാട്ടു കേൾക്കാം അപ്പം ഞങ്ങളുടെ വീടുകളിൽ തന്നെയാണെങ്കിൽ തന്നെ ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിനു മുമ്പ് ഞാനും എൻ്റെ അനിയത്തിയും ഒരുമിച്ചിരുന്ന് ടീ വി കാണുമ്പോഴേക്കും ഞങ്ങൾ എന്താണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാട്ടു കേൾക്കാം സ്കൂളിൽ പോകുന്നതിനു മുമ്പ് അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം ആയിരുന്നു പക്ഷെ പിന്നീട് ഫോണുകൾ വന്നപ്പം പിന്നെ ഞങ്ങൾ മാറി മാറി ഫോൺ ഉപയോഗിച്ചും ഇഷ്ടമുള്ള പാട്ടു കേൾക്കാൻ തുടങ്ങി പക്ഷെ പിന്നീട് ഇൻഡിവിജ്വലായിട്ടുള്ള ഫോൺ വന്നെ പിന്നെ അത് പിന്നീട് ഒന്നു കൂടെ മാറി ഞാനും അവളും പല റൂമുകളിലായിട്ടിരുന്ന് പല വ്യത്യസ്തമായിട്ടുള്ള ഞങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ളൊരു പാട്ട് എടുക്കാനായിട്ടു തോന്നി പക്ഷെ പണ്ടാണെങ്കിൽ കോമണായിട്ടുള്ളൊരു ഇൻട്രറ്റായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് അവർ ഇഷ്ടമുള്ള പാട്ടുകൾ പരസ്പരം എല്ലാം ഒരാൾക്കിഷ്ടപ്പെടുന്ന മറ്റൊരാൾക്കിഷ്ടപ്പെട്ട് അങ്ങനെയായിരുന്നു എടുത്തു കൊണ്ടിരുന്നത് അപ്പം പണ്ടത്തതിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ വ്യത്യാസം തന്നെ ഉണ്ട്